ഹലോ ഇത് സ്കൂൾ പ്രിൻസിപ്പൽ മിസ് മീനയല്ലെ ഹലോ മാം ഞാൻ ടെൻത് എയിൽ പഠിക്കുന്ന ആരോൺൻ്റമ്മയാണ് ആ മാം ഞങ്ങളീ ശനിയാഴ്ച്ച ബാങ്ക്ളൂർ പോകുന്നുണ്ട് അപ്പം ഇനി അടുത്ത വെനസ്ഡേ തിരിച്ചു വരൂ അപ്പം മാം അവനൊരു നാലു ദിവസത്തെ അവധിയൊന്ന് പെർമിറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത് മാം ഇത്തിരി അർജൻറ്റായിരുന്നു മാം ആരോൺൻ്റെ അപ്പച്ചൻ വയ്യാതെ കിടക്കുക അപ്പം മോനെ കാണണംന്നിങ്ങനെ ആവശ്യപ്പെട്ടു അതാ ഞങ്ങളിത്രേം ധൃതി പിടിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇവനെ വിടൂല്ല അതാ മാം ഇത്തിരി ദൂ അത്യാവശ്യമായിരുന്നു അതെ അതെ വ താങ്ക്സ് റീനു മാം മാമിനെ ഞാൻ അറിയിച്ചു അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാമിനെ കോണ്ടാക്ററ് ചെയ്യാൻ പറഞ്ഞത് മാം വേണമെങ്കിൽ എക്സ്ട്രാ ക്ലാസിരിക്കാം ഇതിപ്പം അർജൻറ്റായോണ്ട

ആ ഓക്കെ മാം അതെ മാം അതെ ഓക്കെ മാം ഇനി ഇല്ല ഇല്ല മാം ചെയ്യാം ചെയ്യാം ഇപ്പം റിൻസി മാമിനോട് സംസാരം റീനു മാമിനോട് സംസാരിച്ചു എന്താ മാം ആ റീനു മാമിനോട് പറഞ്ഞു ഓക്കെ എക്സ്ട്രാ ക്ലാസിൻ്റെ കാര്യം ശരിയാക്കാം ഓക്കെ മാം താങ്ക് യൂ ആ ഓക്കെ